അമ്പൂരി എന്ന ഞങ്ങളുടെ പ്രദേശത്ത് ഉപയോഗിക്കുന്ന ടെലിഫോൺ ബ്രാൻഡുകളിൽ ഏറ്റവും ഹൈലൈറ്റ ആയിട്ടുള്ളത് ബി എസ് എൻ എൽ ഉണ്ട് എയർടെൽ ഉണ്ട് ഐഡിയ ഉണ്ട് ജിയോ ഉണ്ട് ഇവിടെ ഒരു മലയോര മേഖല ആയതുകൊണ്ട് തന്നെ റേയ്ഞ്ചിൻ്റെ പ്രശ്നം ഞങ്ങൾ നേരിടുന്നുണ്ട് അതായത് എല്ലാ നെറ്റ്വർക്കുകളും ഇവിടെ കൃത്യമായിട്ട് ലഭിക്കുന്നില്ല അതിനാൽ കൂടുതലും മോഡം എന്ന സാങ്കേതികവിദ്യ എല്ലാവരും ഉപയോഗിക്കുന്നു എൻ്റെ കൈയിലുള്ള ഫോണ് വൺ പ്ലസാണ് ആ അത് ഉപയോഗിക്കുന്നതിൽ ഞാൻ തൃപ്തയാണ് അതിന് ധാരാളം സവിശേഷതകളുണ്ട് ഒന്നാമതായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ പിച്ചർ ചിത്രങ്ങളുടെ ക്ലാരിറ്റിയാണ് ഫോട്ടോ എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടെ അത് കിട്ടുന്നുണ്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു അദ്ധ്യാപികയാണ് അപ്പോൾ പല സന്ദർഭങ്ങളിലും നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസും മറ്റും വീഡിയോസും ഒക്കെ എടുക്കേണ്ട സന്ദർഭങ്ങളുണ്ടാവും ആ സമയത്ത് കൃത്യമായിട്ട് അത് നല്ല വ്യക്തതയോടു കൂടെ ഫോട്ടോസ് കാണാനും അത് സേവ് ചെയ്യാനും മറ്റു ആവശ്യങ്ങൾക്ക് പിന്നീട് അത് എടുക്കുന്നതിനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മറ്റൊരു എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്നു പറയുന്നത് സ്റ്റോറേജ് കൂടുതൽ ഉണ്ട് സ്റ്റോറേജ് കൂടുതലുള്ളത് കൊണ്ട് ഒത്തിരി ഡേറ്റാസും സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റോള് ചെയ്തു എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ആ ഫോണ് ഹാങ് ഇതുവരെയും ഹാങ് ആയിട്ടില്ല ഒരു മൂന്ന് വർഷത്തോളമായിട്ട് ഈ ഫോൺ എൻ്റെ കൈയിൽ ഉണ്ട് അപ്പം ഹാങ്ങായിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത് വളരെ ഒരു നല്ല സവിശേഷതയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ പാട്ടുകൾ കേൾക്കാനും ഉപയോഗിക്കുന്നത് ഒത്തിരി ഒരു ദിവസം തന്നെ വളരെ ഇതിൻ്റെ ഉപയോഗം ഒരുപാട് കൂടുതലാണ് സ്കൂളിൽ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ആവശ്യമായ റിസോഴ്സസ് കളക്ട് ചെയ്യുന്നതിന് ഫോണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതായത് സൺഡേ സ്കൂൾ അദ്ധ്യാപിക ആയതുകൊണ്ടും തന്നെ അത്തരത്തിലും എനിക്ക് ഇത് ധാരാളം കാര്യങ്ങളിൽ ഇതി ൽ ഉപയോഗിക്കേണ്ടി വരുന്നു ഈ സന്ദർഭങ്ങളിലെല്ലാം അത് എനിക്ക് നല്ല സഹായകമാണ് ഒത്തിരി സ്റ്റോറേജ് എനിക്ക് ഫോട്ടോസൊക്കെ ആണെങ്കിലും ഒത്തിരി ഈ എൻ്റെ ഫോണിൽ ഉണ്ട് പിന്നെ പല സംഘടനയിലും വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ വാട്സ്പ്പ് ഗ്രൂപ്പുകൾ ഈ ഫോണിലുണ്ട് പക്ഷെ എങ്കിലും ഇതുവരെ അതിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇതൊക്കെ എൻ്റെ ഫോണിൻ്റെ പ്രത്യേകതകളാണ് ഞാൻ അത് ഇഷ്ടപ്പെടുന്നു ഈ ഇതുവരെയും വേറെ അപാക തകളൊന്നും ഈ ഫോണിന് വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ എനിക്ക് ഇഷ്ടപ്പെടുന്നു ഇനി ഈ ഫോണിൽ വേണ്ടത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അധികം സ്റ്റോറേജ് തന്നെയാണ് കാരണം ഇതിനകത്ത് സ്റ്റോറേജ് ഉണ്ടെങ്കിലും നമ്മൾ ഒത്തിരി ഒത്തിരി സോഫ്റ്റ്വെയറുകൾ ഇതിനകത്ത് ആപ്പുകൾ ആപ്പുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ആപ്പുകളൊക്കെ നന്നായിട്ട് കുറച്ചു കൂടുതൽ മെച്ചപ്പെടുകയാണെങ്കിൽ ആപ്പുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ തന്നെ കൂടുതൽ ആപ്പുകൾ ഇതിനകത്ത് ഇൻസ്റ്റോള് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് വേണ്ടത് സ്റ്റോറേജാണ് അങ്ങനെ സ്റ്റോറേജ് കിട്ടണം എന്നു ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫേസ്ബുക്കിൻ്റെയൊക്കെ കൃത്യത ഫേസ്ബുക്കുകളും എല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ഹാൻഡില ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാകണം അതുപോലെ തന്നെ ഫോണിൽ എൻ്റെ ലൊക്കേഷൻ എവിടെ എനിക്ക് വളരെ അധികം ആഗ്രഹമള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ മറ്റു സ്ഥലത്തേക്ക് പോവുമ്പോൾ എവിടെ എവിടെയെങ്കിലും പോവുമ്പോൾ ആ ആള എവിടെയാണെന്ന് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എൻ്റെ ഫോൺ അത് ഫോണിൽ തന്നെ സെറ്റ് ചെയ്തു നമ്മൾ ഫോണ് മേടിക്കുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ തന്നെ ഉണ്ടാകണമന്ന് ആഗ്രഹിക്കുന്നു കാരണം നമുക്ക് ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഫോണ് കൊടുത്തു വിടുവാൻ വിടുകയാണെങ്കിൽ പഠിക്കാൻ പോയിരുന്നു ഉപരിപഠനത്തിനോ ഒക്കെയായിട്ട് പോകുന്ന നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഫോണ് കൊടുത്തു വിടുമ്പോൾ നമുക്ക് അറിയില്ല കുട്ടി യാത്ര ചെയ്യുന്ന വഴി ഇപ്പോൾ എവിടെ എത്തിയെന്നോ എവിടെയാണെന്നോ ഉള്ള കാര്യം നമുക്ക് അറിയില്ല അവരെ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ ഇന്നത്തെ കുട്ടികളായതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ എല്ലാ വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട്

നമ്മടെ നമ്പര് അടിച്ചു നമ്മൾ നമ്മുടെ അടിക്കുമ്പോൾ ആ നമ്പറിൽ ആ ആൾ എവിടെയാണ് എൻ്റെ ലൊക്കേഷനാണ് ഉള്ളത് ആ അല്ലെങ്കിൽ ഇപ്പം ട്രെയിനിലാണുള്ളത് അല്ലേ ബസ്സിലാണുള്ളത് അങ്ങനെയുള്ള നമുക്ക് സംവിധാനം അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെ ഒരു ക്വാളിറ്റി ഫോണിൽ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ അതുപോലെ അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാൻ ഓൺ ചെയ്തിടാനോ ഉള്ള സംവിധാനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകുകയില്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ആകാത്ത രീതിയിൽ ഓഫാക്കാൻ അപ്പം വേണമെങ്കിൽ ഓണാക്കിയാൽ മതി വേണമെങ്കിൽ അല്ലെങ്കിൽ ഓഫാക്കിയിടാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സവിശേഷത ഫോണിൽ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ നമുക്ക് തന്നെ എന്തെങ്കിലും കുറച്ചു ചെറിയ ചെറിയ കാര്യങ്ങൾ ഉദാഹരണം പറഞ്ഞൽ ഒരു ഡാൻസ് പെർഫോമൻസോ ഒരു സോങ്ങോ ഒക്കെ നമുക്ക് തന്നെ ഇപ്പം നമ്മളതൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സഹായം ആവശ്യമാണ് അത്തരത്തിൽ സഹായം ഇല്ലാതെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഒക്കെ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ അതൊരു മേൻമയായിട്ടും ഞാൻ കാണുന്നു ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ചു പറയാനായിട്ടുള്ളത്